ഇതേ ലൈസൻസ് പുതുക്കാൻ വേണ്ടി നിൽക്കാണ് ഒഴിവില്ലാഞ്ഞിട്ടാണ് സംഗതി ആ ആ അതേ ഞാൻ ഞാൻ മാറ്റാൻ നിൽക്കാണ് ആ ആ ഇണ്ടേന് ഞാനും ഇപ്പോട്ത്ത് വായിച്ചു കൊണ്ട് കൊടുക്കണം ആ ആ അതറിയാം അതറിയാം ആ ആ ആവും പക്ഷേ ഞാൻ പുതുക്കണ്ടേ ഇതിപ്പം കുറച്ച് സമയത്തിൻറ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് മാറ്റണം

ആ പുതുക്കണുണ്ട് പുതുക്കണുണ്ട് അതിനെത്രയാകും

ഇല്ല ഞാനിപ്പോൾ കുറച്ച് കാലം സുഖമില്ലാതെ കിടക്കേന് അപ്പം എടുക്കന്നുള്ളൂ ഇല്ല ഞാൻ റെൻറ്റിന് കൊടുക്കണ്ണ്ട് അങ്ങനെ ഇൻഷുറൻസ് അടക്കാൻ ഞാൻ മറന്ന് പോയതാണ് അത് ഞാൻ പൈസടക്കും അതെ ആ ഫൈനടക്കാം ഫൈനടക്കാം ഫൈന് ഇപ്പം എത്രയാണ് ഫൈന്ന്ന് പറയ് ആ ഞാനിന്ന് വൈകുന്നേരം ആർ ടി ഓഫീസ് വൈകുന്നേരം വൈകുന്നേരം അടയ്ക്കാം